ഹലോ ഗിരിജയല്ലേ ഞാന് സുജാതയാണെടീ ആ കുറേ നാളായി വിളിക്കണം വിളിക്കണം എന്നു വിചാരിച്ചിട്ടു പറ്റിയില്ല ഇപ്പോള് ഇപ്പോള് നല്ലൊവസരം വന്നിരിക്കുകയാണ് നമ്മുടെ പള്ളിയില് പള്ളിപ്പെരുനാളാണ് പള്ളിപ്പെരുന്നാള് പള്ളിപ്പെരുന്നാളാണ് ആ ആ ആ പന്ത്രണ്ടാം തീയതിയാണു കൊടിയേറുന്നത് ജനുവരി പന്ത്രണ്ടാണ്

പിന്നെ നല്ലൊരു എന്തോ ആ എന്തായാലും നിങ്ങള് ഫാമിലിയായിട്ട് പോരേ കാരണം നല്ലൊരു വചന ധ്യാനഗുരു വരുന്നുണ്ട് നിങ്ങള്ക്കെല്ലാം അറിയുമായിരിക്കും മാത്യു വാരാമണ്ണിലച്ചന് എന്നു പറയുന്നൊരു അച്ചൻ ആ അപ്പോഴേ രണ്ടു ദിവസം ലീവെടുത്താലും കുഴപ്പമില്ല വന്ന് ഹസ്ബൻറ്റും പിള്ളാരും ഒക്കെ ആയിട്ട് വന്ന് നമുക്കിവിടെ നിന്ന് കുര്ബാനയും പള്ളിപ്പെരുന്നാളുമൊക്കെ കണ്ട് നമ്മുടെ കുട്ടികള്കുടെ സൺഡേ സ്കൂൾ വാര്ഷികമൊക്കെ പങ്കെടുത്തിട്ട് നമുക്കൊരൗട്ടിങ്ങിനൊക്കെ പോയിട്ടങ്ങു പോകാം എന്തു പറ്റി ഓ ഓ എന്നാലും ഹസ്ബൻഡുമായിട്ട് ഇതിനെക്കുറിച്ചൊന്നു സംസാരിക്കൂ ആ അപ്പോള് നമുക്ക് പഴയ കുട്ടുകാരെയൊക്കെ കാണാം നമ്മളെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ കുറേ പേരുണ്ട് ആ എല്ലാരെയും ഒന്നു കണ്ട് വല്ലപ്പോഴുമൊക്കെ ഞാൻ കാണും കുറേ പേരൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ആ നമ്മുടെ കൂടെ പഠിച്ച സുധ തുളസി അവരെയൊക്കെ ഞാൻ കാണും പിന്നെ ഷൈനി ചേച്ചിയെ കാണാം ജയയെ കാണാം ഇവരെയൊക്കെക്കണ്ടു പഴയ പിന്നെ സുഹൃത്ബന്ധങ്ങളൊക്കെ പുതുക്കിയിട്ടു പോകാം ആ ആ ആ ആ നമുക്കു കാണാനുണ്ട് ഇപ്പോള് നമ്മുടെ വിശുദ്ധനാക്കി അൽമായ വിശുദ്ധനാക്കിയ ദേവസഹായം പിള്ളയുടെ തീർഥാടന സ്ഥലമുണ്ട് അതു കഴിഞ്ഞിട്ട് നമുക്ക് പൂവാറില് പോയാല് ബോട്ടിങ്ങിനു പോകാം പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യേണ്ട ഒത്തിരി സാഹചര്യങ്ങളുണ്ട് ഇവിടെ ഉണ്ടുണ്ട് ഉണ്ട് ഉണ്ടുണ്ട് ആ അ അവിടെ അങ്ങനെ അറിയത്തില്ല നമുക്ക് ബോട്ടിങ്ങിനാണെങ്കില് ഒരു ദിവസം പോയിട്ട് വൈകുന്നേരം വരുന്നതിനാണെങ്കില് എഴുനൂറ്റി അൻപത് പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു പാർട്ടി ഉണ്ട് അവരോട് സംസാരിച്ചിട്ട് അൽപ്പം റേറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ പറ്റും മറ്റേതാണെങ്കില് ഞാന് ആ ഞാൻ അന്വേഷിച്ചിട്ടു പറയാം ആ അതിന് എൻ്റെ വീട്ടില് സൗകര്യമുണ്ട് എൻ്റെ വീട്ടില് സൗകര്യമുണ്ട് മുകളിലത്തെ റൂം ഫുള്ളായിട്ട് ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ ബാത്റൂമും വലിയൊരു റൂമാണ്

ആ ആ അവർക്കൊക്കെ നമുക്ക് എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ വീടൊക്കെ അവിടെ കിടപ്പുണ്ട് കുഞ്ഞു പിള്ളാരൊക്കെയേ ഉള്ളു ഒരു കൊച്ചൊക്കെയേ ഉള്ളു അവിടെ താമസത്തിനും മറ്റു കാര് നമുക്കിവിടെനിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും

ആ എങ്കില് നമുക്കു പോവാം

ആ അടിച്ചുകറങ്ങി നമുക്കങ്ങു പോകാം പുറത്തുനിന്നു ഭക്ഷണമൊക്കെ കഴിച്ച് ആ ആ എങ്കിലറിയിക്കേണമേ ഓ ആ ആ ആ ശരി ശരി ആ ശരി അറിയിക്കാം അറിയിക്കാം